ഇപ്പോൾ പണ്ടത്തെ കാലത്തൊക്കെയെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോ പ്രിൻറ് അതായത് നമുക്കിപ്പോൾ കല്യാണത്തിനൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലം പോലെയല്ല ഇപ്പോൾ എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ക്യാമറയും ഇതുപോലെത്തെ ക്യാമറ നല്ല സെറ്റപ്പ് ക്യാമറ കാര്യങ്ങൾ ഒന്നുമല്ല അപ്പോൾ സാദാ ഒരു ക്യാമറ അതിൽ ഫോട്ടോ എടുക്കും അവര് നമുക്ക് പ്രിൻറ് ഔട്ട് എടുത്തു തരും അല്ലെങ്കിൽ ഒരു ആൽബത്തില് ഇങ്ങനെ ഒട്ടിച്ച് ഒട്ടിച്ച് ഒട്ടിച്ച് തരും അതൊക്കെയായിരുന്നു അന്നത്തെ മെമ്മറീസ് കാര്യങ്ങളൊക്കെ അപ്പോഴെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് ഇപ്പോൾ ആൾക്കാർക്ക് കാണാനും അതായത് നമുക്ക് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാനും ഇപ്പോൾ എൻ്റെ അമ്മേൻ്റെ ഒക്കെ അമ്മേന്റേയും അച്ഛൻ്റെയൊക്കെ ഫോട്ടോകൾ അങ്ങനെ ഒരുപാടുണ്ട് ഇപ്പോഴെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ അമ്മേന്റേയും അച്ഛന്റേയും ഫോട്ടോസൊക്കെ ഇപ്പോഴും അതുപോലെ തന്നെ പ്രിയ അതായത് പ്രിൻറ് ആക്കീട്ട് പിന്നെ ഓരോന്നിങ്ങനെ ഒട്ടിച്ച് ഒട്ടിച്ച് വച്ചിട്ടുണ്ട് പക്ഷെ ഇന്നത്തെ ഇന്നെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോയൊക്കെ അടിപൊളിയാണ് പക്ഷേയെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പേപ്പർ തമ്മിൽ ഒട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇത് പ്രിൻറ് പോകുമ്പോൾ അങ്ങനെയൊക്കെയാണ് പക്ഷേ ഇന്നത്തെ കാലത്തെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ഒരു പേജ് ഫുള്ള് ഒരു ഫോട്ടോയായിട്ട് ഫുള്ള് അതായത് നമുക്ക് ഒരിക്കലും പോവാതെ അതായത് ഒട്ടിപ്പിടിക്കാണ്ടും അങ്ങനെയുള്ള നല്ല സെറ്റപ്പ് ഫോട്ടോയാണ് അതുപോലെ പൈസയും ഉണ്ട് അപ്പോഴെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ ഫോട്ടോയ്ക്കൊക്കെ വൈകാരികമൂല്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഒരുപാട് ഉണ്ട്